കേരളത്തിലെ പാലക്കാട് പട്ടണത്തിൽ ഹൃദയ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട അല്ലെങ്കില് ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്ന് പറയുന്നത് സ്ഥിതി ചെയ്തിരിക്കുന്നത് മൈസൂർ രാജാവായിരുന്ന ഹൈദരി ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ പണികഴിപ്പിച്ച ഈ കോട്ടയിൽ പിന്നീട് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ കോട്ട പുനരുദ്ധീകരിച്ചു പല പല വീര കഥകളും ഇറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പ് ആണ് സംരക്ഷിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംസാരിച്ചിരുന്ന കോട്ടകളിൽ ഒന്നാണ് പാലക്കാട് കോട്ട ഇത് നിർമ്മിച്ചത് ഹൈദരവി ആണ് പിന്നെ ഇത് നിലവിൽ വന്നത് ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആണ് ഈ കോട്ട നിർമ്മിച്ചത്